ഇൻഡ്യയിലെ രാഷ്ട്രീയ കക്ഷികളെയും രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ച് എനിക്കു വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്

ലോകത്തു തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കഷികളുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് ഇന്ത്യയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ കഷികളുള്ളതായ ലോകത്ത് അറിയപ്പെടുന്ന ഏക രാജ്യം ഇറ്റലിയാണെന്നാണ് കേൾക്കുന്നത് ഒരു വർഷം തന്നെ എട്ട് ഒമ്പതു പ്രാവശ്യം അവിടുത്തെ ഭരണ നേതൃത്വം മാറുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ ധാരാളം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഇൻഡ്യയിൽ അത്രയും ഒരു പ്രശ്നമുള്ളതായിട്ട് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇൻഡ്യയില് ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് അവരുടെ ഭരണകർത്താക്കളായിട്ടു വരുന്നത് നിർഭാഗ്യവശാൽ പല കുത്സിത മാർഗ്ഗങ്ങളിലൂടെയും കുടുംബാധിപത്യം പണാധിപത്യം പലതരം ലോബി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ധാരാളം രാഷ്ട്രീയ കക്ഷികൾ ഭരണ നേതൃത്വത്തിലേക്ക് എത്തിച്ചേർന്നു കാണാറുണ്ട് അതൊന്നും യഥാർത്ഥത്തിൽ ശരിയായ ഒരു ജനാധിപത്യ ബോധമാണെന്നുള്ള അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ലോകത്തിനു തന്നെ മാതൃകയാകാവുന്ന പല നേതാക്കളെയും സംഭാവന ചെയ്ത രാജ്യമാണ് ഇന്ത്യ അതിലേറ്റവും ഒന്നാമത്തെ വ്യക്തിയെന്നു പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെയാണ് ദക്ഷിണാഫ്രിക്കയിൽ പോയി വർണ്ണ വിവേചനത്തിനെതിരെ പോരാടുകയും അവിടുത്തെ കറുത്ത അടിച്ചമർത്തപ്പെട്ട കറുത്ത വർഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ധാരാളം പീഡനങ്ങൾ ഏറ്റു വാങ്ങുകയും ജയിൽ വാസം അനുഭവിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളയാളാണ് മഹാത്മാഗാന്ധി എന്ന വിവരം നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ മഹാത്മാ ഗാന്ധിയുടെ പിന്മുറക്കാരായി അദ്ദേഹത്തിൻ്റെ ആശയം കൊണ്ട് ഉയർത്തി പ്പിടിക്കുന്ന ആളുകൾ ആരും തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അവർക്കു വിജയിക്കാൻ സാധിച്ചിട്ടില്ല പിന്നീട് പല മതങ്ങളുടെ ബേസിലും ഒക്കെ ഇന്ത്യയിൽ ഭരണങ്ങൾ വന്നിട്ടുള്ളതായി നമുക്ക് അറിയാം മതങ്ങളെ തമ്മിലടിപ്പിച്ചും സാമ്പത്തിക ആധിപത്യം മൂലവും അഴിമതി നടത്തിയും ഒക്കെ രാജ്യത്തിൻ്റെ ഭരണം നേതൃത്വത്തിലെത്താന് വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അഹോരാത്രം പണിയെടുക്കുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇവ ഇൻഡ്യയില് ഇൻഡ്യൻ ഭരണാകർത്താക്കളായിരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നു പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഒരിക്കൽ ഇന്ദിരാ അതിൻ്റെ പ്രധാന കാരണം ഇന്ദിരാഗാന്ധി എന്ന വനിതയുടെ ഇച്ഛാശക്തിയാണ് ആയിരുന്നു പാക്കിസ്ഥാനുമായി ഇൻഡ്യ യുദ്ധം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെയും എഴുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി എന്ന ഉരുക്കു വനിതയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ടു മാത്രമാണ് പാക്കിസ്ഥാൻ എന്ന രാജ്യത്തെ ഇൻഡ്യൻ സൈന്യത്തിനു പരാജയപ്പെടുത്താൻ സാധിച്ചത് അന്ന് ലോകപ്രശസ്ത നയതന്ത്രജ്ഞനായിരുന്ന ജർമ്മൻക്കാരനായിരുന്ന ഹെൻറി കിസ്സിൻജർ ഇൻഡ്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇൻഡ്യയിൽ ഞാൻ ഒരേ ഒരു പുരുഷനെയേ കണ്ടുള്ളു അവരുടെ പേര് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു എന്നാണ് അങ്ങനെ ഉറച്ച ഭരണ നേതൃത്വവും ഭരണ പാടവവും പ്രകടിപ്പിച്ച വളരെ അപൂർവ്വം ഭരണാധാരികൾ മാത്രമേ ഇൻഡ്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ പിന്നീട് നമുക്ക് രാഷ്ട്രപതിയായിത്തീർന്ന അബ്ദുൽ കലാം അദ്ദേഹവും നമ്മളുടെ ഒരു മിസൈൽ ശാസ്ത്രജ്ഞനും ഇൻഡ്യൻ ശാസ്ത്ര രംഗത്തെ ഏറ്റവും പ്രഗൽഭനായ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ഇൻഡ്യൻ ജനാധിപത്യത്തിന് എന്തെല്ലാം പ്രശ്ന വൈകല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയേക്കാൾ ജനസംഖ്യ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചൈന അതിൻ്റെ ഒരു ഉദാഹരണമാണ് ചൈനയിലൊന്നും ജനാധിപത്യമോ ജനങ്ങൾക്ക് അവരുടെ നേതാവിനെ തെരെഞ്ഞെടുക്കാനുള്ള യാതൊരു വിധ അവകാശമോ ഇല്ല ഒരു ഏകാധിപത്യ ഭരണം മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വച്ചു നോക്കുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഭാസുരമായ ഒരു ഭാവി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട ഇൻഡ്യയിലെ ജനവിഭാഗങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം രാഷ്ട്രീയകക്ഷികൾ ഉണ്ട് അതിൽ കപട മുഖങ്ങളുമുണ്ട് ആത്മാർഥമായി പ്രവർത്തിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടും കൂടുതലിഷ്ടമാണുള്ളത് അതിൻ്റെ അടിസ്ഥാന കാരണം ജനങ്ങൾക്കു തന്നെ തങ്ങളെ ഭരിക്കേണ്ട ആളുകളെ തെരെഞ്ഞെടുക്കാനുള്ള അവകാശം ലഭിക്കുന്നു എന്നുള്ളതു തന്നെയാണ് അതിൽ നമുക്ക് മൊത്തത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം അതിൻ്റേതായ പുരോഗതിയും ഈ ജനാധിപത്യം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ത്യയ്ക്കു വളരെയധികം പുരോഗതി കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ അഭിമാനാർഹമായൊരു കാര്യം തന്നെയാണ് അതിനെ ഒരിക്കലും നമുക്കു നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല